ആ വസന്ത് വിഹാറ് മസാലദോശ എപ്പളത്തേക്ക് വൈകിട്ടേക്ക് തരാല്ലോ മസാലദോശ എത്ര എണ്ണം വേണം പത്തെണ്ണം ആ എടുക്ക് പാർസലാ അല്ലേൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ആ പാർസല് ഏടെ ഇത് ഡിസ്റ്റൻസ് മന്നിപ്പാടിക്കാ ആ ഞങ്ങളൊരു ഫൈവ് കിലോമീറ്ററ് ഡിസ്റ്റൻസ് മാത്രമാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ മന്നിപ്പാടി വരുമ്പോൾ ഒര് ആറ് ഏഴ് കിലോമീറ്ററ് വരും അല്ലേ ആളെ അയയ്ക്കും അല്ലേ ആ അല്ല നിങ്ങൾ വന്നെങ്കിൽ നല്ല ഉണ്ടായിരുന്നു പാർസല് ഇവിടെ ഓക്കെ ഓക്കെ പത്ത് പത്ത് വേറെ ഗോപി മഞ്ചൂരിയനുണ്ട് പിന്നെ തുപ്പ ദോശയുണ്ട് പിന്നെ നീയ്റോസ്റ്റുണ്ട് പൊറോട്ട ചപ്പാത്തി നിങ്ങൾ വന്നെങ്കിൽ ആ നിങ്ങൾ വന്നെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിട്ട് ഏത് വേണോ അപ്പളത്തേക്കെന്നെ അപ്പോൾ സ്പോട്ടിലുണ്ടാക്കി എടുക്കാം ഫ്രഷായിട്ട് രണ്ട് ഗോപി മഞ്ചൂരിയൻ പത്ത് മസാലദോശ പിന്നെ രണ്ട് തുപ്പ ദോശ പിന്നെ ജ്യൂസ് രണ്ടും വേറെ ഉണ്ട് ആപ്പിളുണ്ട് പൈനാപ്പിളുണ്ട് ഓറഞ്ചുണ്ട് മൊസാമ്പിയുണ്ട് ഷേക്കുണ്ട് ഐസ്ക്രീം വേണെൽ ഏത് ഐസ്ക്രീം അതിനകത്തുണ്ട് ഐസ്ക്രീമ് ഉണ്ട് ഫാമിലി നോക്കാ അല്ലേ ആ നല്ല തന്നെ കൊടുക്കുന്ന ആപ്പിളുണ്ട് അഞ്ചെണ്ണം അല്ലേ ഓക്കെ പിന്നെ വേറെ അതായത് ഇവിടെ നിങ്ങൾ കറക്റ്റ് ടൈമിംഗ് തന്നെ ആ സ്പോട്ടിലേക്ക് വന്നപാടെന്നെ നിങ്ങൾ റെഡിയാക്കി കിട്ടും അത് ഓൾ റെഡിയായിറ്റ് വെക്കുക ആ കുറെ ലേറ്റാവുമ്പോൾ ഞാൻ തന്നെ ഇവിടെ ചെയ്ത് വെക്കാം ഏത് ടേസ്റ്റില്ല അത് ടേസ്റ്റുണ്ടാവൂല ഓക്കെ ഓക്കെ കറക്റ്റ് ആറ് മണി ആ ടൈമിൽ എല്ലം റെഡിയാക്കീറ്റ് വെക്കുന്ന വേറെ പണിക്കാർ വിടാതെ നിങ്ങളെപ്പന്നെ കൊണ്ട് പോവാം ആ ആ ഓക്കെ നിങ്ങൾ എൻ്റെ ഇൻഫർമേഷൻ ഓർത്താൽ മതി കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെയാ ഓക്കെ മാഡം